കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിൽ ഒന്നായ പാലക്കാട് പണ്ട് മുതല് തന്നെ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തു വരുന്നൊരു ജില്ലയാണ് കൃഷി ഉപജീവന മാർഗമായിട്ട് ജീവിക്കുന്ന കൂടുതൽ ആൾക്കാര് കണ്ട് വരുന്നത് പാലക്കാടാണ് അതുകൊണ്ട് തന്നെ പണ്ട് മുതലേയുള്ളൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ കൃഷിക്കും അതുപോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്കാണ് കൂടുതലായിട്ടും സ്ത്രീകള് കടന്ന് ചെല്ലാറ് അതുകൊണ്ടുതന്നെ സാക്ഷരതയിൽ പുറകെ നിൽക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത് പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഡി വൈ എഫ് ഐ പോലുള്ള സംഘടനകൾ പി എസ് സി പോലുള്ള കോച്ചിങ്ങ് കൊടുത്തിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വളരെ അധികം സഹായിക്കുന്നുണ്ട് ഇപ്പോ എൻ്റെ നാട്ടിൽ തന്നെ ഒരു മൂന്ന് കോച്ചിങ്ങ് സെൻറ്ററുകൾ തന്നെ പി എസ് സി പോലുള്ള കോച്ചിങ്ങ് സെൻറ്ററുകൾ തന്നെ ഡിവൈഎഫ്ഐയുടെ അഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ തുന്നൽ പരിശീലന കേന്ദ്രം അതുപോലെ പഠനസാമഗ്രികൾ എത്തിച്ച് കൊടുക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ധനസഹായം എന്നിങ്ങനെയൊക്കെ വളരെ വിപുലമായിട്ടുള്ളൊരു ഒരു സംഘടനാപ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ പോലുള്ളൊരു സംഘടന പിന്നെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെയിലി അല്ലെങ്കിൽ ദിനം ദിനം വർധിച്ച് വരുന്ന ഈ തൊഴിൽ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡി വൈ എഫ് ഐ പോലുള്ള സംഘടനകൾ സ്ത്രീകളുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് വളരെ അധികം സഹായിക്കുന്നുണ്ട്